നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ചുള്ള അറിവിൻ്റെ തുടക്കം സ്കൂൾ സ്കൂൾ ടൈമിൽ നിന്നാണ് അവിടെയുള്ള സയൻസ് ഫെസ്റ്റിവൽ തന്നെയാണ് ഇതിൻ്റെ തുടക്കം ഉദാഹരണത്തിന് ആദ്യമായി പഠിച്ചപ്പോൾ നക്ഷത്രവും സൂര്യനെന്ന നമ്മുടെ നക്ഷത്രവും അതിനു ചുറ്റും കറങ്ങുന്ന ഒൻപത് ഗ്രഹങ്ങളും ഇന്ന് ഒൻപത് ഗ്രഹങ്ങളില്ല ഒരു ഗ്രഹത്തിനെ ഗ്രഹപ്പട്ടികയിൽ നിന്നും എടുത്തു കളഞ്ഞിട്ടുണ്ട് കാരണം അതിൻ്റെ സൈസും നക്ഷത്രത്തിനു ചുറ്റും കറങ്ങുന്ന ഓർബിറ്റും ഒരു കാരണമാണ് പിന്നെ ഭൂമിയും സൂര്യനിൽ നിന്നും ആദ്യത്തെ മൂന്നാമത്തെ ഗ്രഹമാണ് ഭൂമി നമ്മുടെ ഹോം പ്ലാനെറ്റായ ഭൂമി മൂന്നാമത്തെ ഗ്രഹമാണ്

ജീവൻ നിലനിർത്താൻ സാദ്ധ്യമായ ഒരേ ഒരു ഗ്രഹം ഭൂമിയാണ് നമ്മുടെ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ദൂരം ഭൂമിയുടെ സൈസ് എന്നിവ ഇവയ്ക്കൊക്കെ കാരണമാണ് പിന്നെ

മറ്റുള്ളവർക്ക് ഭൂമിയിൽ ഈ ഗൃഹങ്ങളിലും നക്ഷത്രങ്ങളിലും ഇൻട്രസ്റ്റുണ്ടാകാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ എന്നെ സഹായിച്ച ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും സ്കൂളിലെ പഠനമാണ് പിന്നെ ഇപ്പോഴത്തേ സാമൂഹ്യമാധ്യമങ്ങൾ ഇൻറ്റർനെറ്റിലുള്ള യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എന്നീ മാധ്യമങ്ങളിലൂടെ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട് അതായത് ഈ കാൾ സേഗൻ പോലെയുള്ള നാസയിലെ സയൻറ്റിസ്റ്റുകൾ അവരുടെ ഇൻസ്പയറിങ്ങായിട്ടുള്ള പ്രസംഗങ്ങൾ നീൽ ഡിഗ്രേസ് ടൈസൻ്റെ പ്രസംഗം ഇവയെല്ലാം അസാധ്യം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നീട്ടുള്ള കാൾ സാഗൻ്റെ ദ പെയിൽ ബ്ലൂ ഡോട്ട് എന്നീ പുസ്തകമാണ് അതിൽ തന്നെ എ വിഷൻ ഓഫ് ഹ്യൂമൻ ഫ്യൂച്ചർ ഇൻ സ്പേസ് അതായത് മനുഷ്യരാശി ബഹിരാകാശത്ത് സൃഷ്ടിക്കാൻ പോകുന്ന അത്ഭുതങ്ങളെപ്പറ്റി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ എഴുതിയൊരു പുസ്തകമാണത് അതു വളരെയധികം ഇൻസ്പയറിങ്ങായിട്ടുള്ളൊരു ബുക്കാണ് മനുഷ്യരാശിക്ക് എന്തൊക്കെ ഭാവിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻറ്റൊരു ഗ്ലിംസ് ഒരു കാര്യം പറയുന്നുണ്ടതിൽ പിന്നെ ടു ഇൻഫിനിറ്റി ആൻഡ് ബീയോണ്ട് ബൈ നീൽ ഡി ഗ്രേസ് ടൈസൺ അദ്ദേഹം ഒര് ലെജൻറ്ററിയായിട്ടുള്ള റൈറ്റർ തന്നെയാണ് ഇൻഫിനിറ്റി ആൻഡ് ബിയോണ്ട് എന്നു പറയുമ്പോൾ അനന്തമായ പ്രപഞ്ചവും അതിനപ്പുറത്ത് എന്തെന്നും ഉള്ളതാണതിനെപ്പറ്റി പറയുന്നത് നമ്മൾ മനുഷ്യരാശി അടുത്തു ചെയ്യാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളെപ്പറ്റി അതിൽ പറയുന്നുണ്ട് ഉദാഹരണത്തിന് അടുത്തുള്ള ഗ്രഹങ്ങളിലേക്കുള്ള സന്ദർശനം അവിടെ അവിടെ മനുഷ്യർ നിത്യമായി താമസിക്കാനുള്ള സാഹചര്യം പിന്നെ ആസ്ട്രോയിഡ് പണ്ട് ഡൈനോസറുകളെ തുടച്ചു നീക്കിയ ആസ്ട്രോയിഡ് അതായത് ഉൽക്കകൾ അതിനെപ്പറ്റി ഇനി അങ്ങനൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇപ്പെങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള കാര്യങ്ങൾ ഇതക്കെ പറ്റി ആലോച്ചിക്കുമ്പഴും സ്പേയ്സൊര് മിസ്റ്ററി ആൻഡ് ഇൻസ്പയറിങ്ങായിട്ടുള്ള കാര്യമാണ് അപ്പം ഇതക്കെ മറ്റുള്ളവർക്ക് പറയാൻ സഹായിക്കുന്നത് തീർച്ചയായിട്ടും ഈ പുസ്തകങ്ങൾ തന്നെയാണ് എ വിഷൻ ഓഫ് ഹ്യൂമൻ ഫ്യൂച്ചർ ഇൻ സ്പെ ഇൻ സ്പേയ്സ് ആൻഡ് ദ ടു ഇൻഫിനിറ്റി ആൻഡ് ബീയോണ്ട്